ഹലോ ഇത് ക്യാബ് ഏജൻസി അല്ലെ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ കോഴിക്കോടുനിന്ന് വിളിക്കണതാണ് മുക്കത്തുനിന്ന് അപ്പോൾ നമ്മൾക്ക് ഒന്ന് എറണാകുളത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ബൈപാസ് വഴി എന്തായാലും പോകുവാൻ പറ്റില്ലല്ലോ അതെ അതെ റോഡ് പണി ആയതുകൊണ്ട് അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും എളുപ്പവഴിയോ അങ്ങനെ ഏതെങ്കിലും ഒരു റൂട്ട് നമുക്ക് ലഭ്യമാണോ അതെ അതെ ആ നമ്മൾക്ക് എനിക്കൊന്ന് ടൗണിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ടൗണിൽ പോയിട്ട് വേണം അതായത് ബസ്സ് സ്റ്റാന്റിൻ്റെ അവിടെ ഒന്ന് പോയിട്ട് വേണം എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മൾക്ക് മുക്കം വഴി പോകുന്നതിന് കുഴപ്പമില്ലായിരുന്നു അതാണ് ഞാൻ ഇവിടെ വന്നിട്ട് എന്നെ പിക്ക് ചെയ്തിട്ട് വേണം ടൗണിലേക്ക് പോകുവാൻ ടൗണിൽ പോയിട്ട് വേണം നമ്മൾക്ക് എറണാകുളത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ട് അവിടെനിന്നൊരു സാധനം എടുത്തിട്ട് വേണം പോകുവാൻ ഇപ്പോൾ അവിടുന്നേതെങ്കിലും ബൈപാസ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും വഴിയുണ്ടോ ബൈപാസ് വഴി ആ ഓക്കെ ഓക്കെ അതിലെ വേറെ വഴിക്ക് പോകാമല്ലേ ആ അത് നമുക്ക് പെട്ടന്ന് പോയി പോയിക്കൂടേ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ക്യാമറയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ആ ഓക്കേ ഓക്കെ അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഒന്ന് വന്നോ കേട്ടോ ഓക്കെ എന്നാൽ